ഹലോ ഹലോ എന്റെ പേര് മുബഷിറ ഞാനിപ്പോൾ കോഴിക്കോട് ജില് ഞാനിപ്പോൾ കേരളത്തിന് പുറത്തുനിന്നാണ് ഇപ്പോൾ ഇങ്ങളെ വിളിക്കുന്നത് ഞാനപ്പോൾ ഒരു ട്രാവല് ചെയ്യുന്ന ഒരു ആളാണ് അപ്പോൾ ഒരു രണ്ടുമൂന്ന് ദി ഒരാഴ്ച്ച പിന്നെ ഒരാഴ്ചത്തേക്ക് ട്രിപ്പ് പ്ലാന് ചെയ്തിട്ട് വരാനായിരുന്നു കേരളത്തിൽ എങ്ങനെയാണ് ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണാനായിട്ടുള്ളത് ടൂറിസ്റ്റ് പ്ലൈസോക്കെ ഉള്ളത് ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചൂടാണ് അപ്പോൾ നമുക്ക് തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാന് വേണ്ടിയിട്ടായിരുന്നു ആണോ ചൂട് കുറവായിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഒരു ഒരാഴ്ചത്തേക്ക് ഒരു ട്രിപ്പ് വരാന് വേണ്ടിയിട്ടായിരുന്നേ ഞങ്ങള് അഞ്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളിപ്പോൾ കോഴിക്കോട് ആണെങ്കില് എവിടെയാണ് ഇപ്പോൾ ഞങ്ങള് ഇറങ്ങേണ്ടത് എവിടേക്കാണ് വരേണ്ടത് ഇപ്പോൾ നേരിട്ട് വയനാട്ടിലേക്ക് വന്നാൽ മതിയോ അതോ ഓക്കെ വയനാട്ടിൽ വന്നിട്ട് നിങ്ങളെ കോള് ചെയ്താൽ മതി അല്ലേ അപ്പോൾ ഈ താമസവും ഫുഡിന്റെ കാര്യങ്ങളൊക്കെയോ ഓക്കെ ഞങ്ങൾക്കൊരു ഹൌസ് ആണ് ഹൌസ് ഒരാഴ്ചത്തേക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു റൂമിനെങ്കാട്ടും നല്ലത് ഒരു വീടൊക്കെ കിട്ടുകയായിരുന്നു നല്ലത് ആ അപ്പോൾ അങ്ങനെയാവുമ്പോൾ അതിനൊക്കെ റേറ്റ് ഒക്കെ ഒരുപാട് ആവുമോ ഞങ്ങൾ എത്രയാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഒരാഴ്ചത്തേക്ക് ആ ഒരു വീട് ഞങ്ങൾക്ക് വേണം ഫുഡ് ക ഓക്കെ രണ്ടായിരമാണല്ലേ ആ എന്നാൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷേ ഫുഡ് കാര്യങ്ങൾ ഒക്കെ കൂട്ടിയിട്ടാണോ ഈ രണ്ടായിരം വരുന്നത് ഒരു ദിവസത്തേക്ക് രണ്ടായിരം അല്ലേ അപ്പോൾ ഈ അവിടെ വയനാട്ടിലെ കള്ച്ചറിനെക്കുറിച്ച് ഒന്ന് പറയാമോ വസ്ത്രധാരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഓക്കെ ആ ഇപ്പോൾ ഞങ്ങളപ്പോൾ ഒരാഴ്ച ആവുമ്പത്തെനും അങ്ങോട്ട് വരാം കേട്ടോ രണ്ടുമൂന്ന് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ വയനാടെത്തും അപ്പോൾ ഞങ്ങള് മേഡത്തിനെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അല്ലേ ഓക്കെ മേഡത്തിന്റെ പേരെന്താണ് പറഞ്ഞത് വീട് എവിടെയാണ് മേഡത്തിന്റെ ഓക്കെ മേഡം നിങ്ങൾ കോഴിക്കോട് അല്ലായിരുന്നോ മേഡത്തിന്റെ വീട് കോഴിക്കോട് ആണോ മേഡത്തിന്റെ വീട് കോഴിക്കോടോമറ്റോ ആണോ ആ ഓക്കെ ഓക്കെ ആ എന്നാൽ ഓക്കെ മേഡം താങ്ക്യു